ഇപ്പം നേരിട്ട് എന്താ പറയുക എനിക്കങ്ങനെ പാട്ടുകാരെ കുടുതലായിട്ടെന്താ പറയുക ഈ അമ്പലങ്ങളിലൊക്കെ ഗാനമേളപോലുള്ള പരിപാടിക്കൊക്കെ വന്നിട്ടുള്ള പാട്ടുകാരെ മാത്രമേ എനിക്ക് പരിചയമായിട്ടുള്ളൂ അല്ലാതെ എനിക്ക് പാട്ടുകാരെയൊന്നും അങ്ങനെ കുടുതലായിട്ട് പരിചയമുള്ള ഗായകരൊന്നും അങ്ങനെ അധികമാരും ഇല്ല

ഒരു പ്രിയാ ജേഴ്സൺന്ന് പറയുന്നൊരു ഗായികേനെ എനിക്ക് കാണണംന്ന് ആഗ്രഹമുണ്ട് പോരാത്തതിന് എന്താ പറയുക ആ ഗായികയുടെ സൗണ്ട് എന്ന് പറയുമ്പോ എന്ത് പറയുക ശരിക്കും അട്ട്രാക്റ്റീവ് ആണ് സൊ എനിക്ക് വലിയൊരു ആരാധന തോന്നിയിട്ടുള്ള ഒരു ഗായികയാണ് അദ്ദേഹം പിന്നെ എന്താ പറയുക കുടുതലും ഗാനങ്ങൾ ഒക്കെ എന്താ പറയുക വെറൈറ്റി രീതിയിലുള്ള ഗാനങ്ങളായിരുന്നു അദ്ദേഹം ഗായിക തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളികാരിയോട് ഭയങ്കര ആരാധനയായിരുന്നു പിന്നെ മലയാളത്തിത്തന്നെ ഇപ്പൊ എന്താ പറയുക പഴയ പാട്ടുകൾ ഒക്കെ പാടുന്ന ദാസേട്ടൻന്നൊക്കെ പറയുമ്പോ നമുക്ക് വലിയ എന്താ പറയുക ഒരാരാധന തന്നെയാണ് പിന്നെ ചിത്ര എന്താ പറയുക പിന്നെ സിത്താര ശ്രെയ ഘോഷാൽ അങ്ങനെ കുറേ ഗായികമാരെ കുറിച്ച് എന്താ പറയുക എനിക്ക് അറിവുണ്ട് അവരൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല പാട്ടുകാരാണെന്നാണ് എൻ്റെ ഒരു നിഗമനം